ഞങ്ങളുടെ പ്രദേശങ്ങളിലെ കൂടുതലും കാണുന്ന മതവിശ്വാസങ്ങൾ എന്നു പറയുന്നത് ക്രിസ്ത്യൻസും ഹിന്ദു ഹിന്ദൂസും ആണ് ഇവിടെ മുസ്ലിംസ് അങ്ങനെ കണ്ടുവരാറില്ല കൂടുതലും ക്രിസ്ത്യൻസും ഹിന്ദൂസും ആണ് ക്രിസ്ത്യൻസ് എന്നു പറയുമ്പോൾ ഇവിടെ ഒരു ഒരു ക്രിസ്ത്യൻ പള്ളിയും ഒരു യാക്കോബ് പള്ളിയും ഒരു കേനനപ്പള്ളിയും ഉണ്ട് പിന്നെ ഞങ്ങളുടെ ഏരിയ കുറച്ചങ്ങോട്ടു മാറിയപ്പം കുറച്ച് അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ വേറൊരു ക്രിസ്ത്യൻ പള്ളിയുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ ഉള്ളതാണ് ഹിന്ദുസ് എന്നു പറയുമ്പോഴേക്കും ഇവിടെ ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ഷേസ്ത്രം പോലെ എസ് എൻ ഡി പികാരുടെ ഒരു ഇതുണ്ട് പിന്നെ അങ്ങോട്ട് ഇച്ചിരി മാറിക്കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ട് അതു തന്നെയാണ് ഈ ഏരിയയിൽ അങ്ങനെയാണ് പിന്നെ കുറച്ചു കൂടി ഇച്ചിരിയും കൂടി അങ്ങോട്ടു മാറിയി ട്ടാണെങ്കിൽ ഇവിടെ ഒരു ടെമ്പിൾ അമ്പലം ഉള്ളത് കൂടുതലും ഇവിടെ ക്രിസ്ത്യൻസും ഹിന്ദൂസും ആണ് മുസ്ലിംസ് അങ്ങനെ കണ്ടു വരാനായിട്ട് സാദ്ധ്യത കുറവാണ് ടൗൺ ഏരിയ ചങ്ങനാശ്ശേരി ആണ് ഞങ്ങൾ ടൗൺ ഏരിയ എന്നു പറയുന്നത് അപ്പം ചങ്ങനാശ്ശേരിയിലോട്ടു പോയി കഴിയുവാണെങ്കിൽ ഹിന്ദൂസിനെ ഒക്കെ കാണാനായിട്ടും ഹിന്ദൂസിനെ അല്ല മുസ്ലിംസിനെ ഒക്കെ കാണാനായിട്ടും കൂടുതലുണ്ട് അവിടെയാണേലും ക്രിസ്ത്യൻസിനെയും ഹിന്ദൂസ് ഒക്കെ ഉണ്ട് മുസ്ലിംസ് ചാപ്പൽസും മുസ്ലിം ചർച്ചൊക്കെയുള്ളത് അവിടെയാണ് നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ ഏരിയയിലാണ് ഇവിടെ അങ്ങനെ കണ്ടു വരാറില്ല ഇവിടെ കൂടുതലും ക്രിസ്ത്യൻസാണ് ഒരു പത്ത് അറുപത് അറുനൂറ് ആ ഞങ്ങളുടെ ചാപ്പലിനു കീഴെ ക്രിസ്ത്യൻ ചാപ്പലിനു കീഴെ മുനൂറ്റി അൻപതും സോറി നൂറ്റിയൻപത് വീടുകളാണുള്ളത് അപ്പം അപ്പം തന്നെ എത്ര ആൾക്കാർ ഉണ്ടെന്ന് നമുക്കു മനസ്സിലാക്കാൻ പറ്റുമല്ലോ അങ്ങനെ ഹിന്ദുസ് ചാപ്പലിനും ഹിന്ദുസ് ടെമ്പിളിനും അങ്ങനെയൊക്കെ തന്നെ ആണെന്നാണ് പിന്നെ ഇവിടെ കൂടുതൽ കണ്ടുവരുന്നത് ഈ രണ്ടു കാറ്റഗറീസ് ആണ്